ഇപ്പോൾ ഞാൻ ശേഖരിച്ച സ്റ്റാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആദ്യത്തെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ സ്കുളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഓരോ സ്റ്റാമ്പ് ഒക്കെ ഇങ്ങനെ കൊണ്ട് തരുന്ന കണ്ടിട്ടാണ് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ നമുക്ക് ജനുവരി ഇരുപത്തി ആറിന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇതിനൊക്കെ സ്റ്റാമ്പുകൾ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു അപ്പം അത് രണ്ടുരൂപ കൊടുത്ത് നമ്മൾ അഞ്ചോ രണ്ട് രൂപയോ ഒക്കെ കൊടുത്ത് വാങ്ങണമായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഓരോന്നും കളക്ട് ചെയ്ത് കിട്ടുമ്പം ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഇപ്പം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇങ്ങനെ എല്ലാ സ്റ്റാമ്പുകളും കളക്ട് ചെയ്തിട്ട് ഒരു സ്റ്റാമ്പ് കളക്ഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കിയാലോയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടോ തൊട്ടാണ് ഇത് സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ആ ഇപ്പം ഇപ്പം വരെ ഞാൻ എന്തെയ്യാ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റാമ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഞ്ച് രൂപേൻ്റെ സ്റ്റാമ്പ് ഇപ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പ് അങ്ങനത്തെ പലതരം സ്റ്റാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം കളക്ട് ചെയ്തേ എന്ന് പറഞ്ഞു കഴിഞപഞ്ഞാൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെയാണ് അത് നല്ല രസമാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ കൂടുതലായിട്ടും കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം